ഒരു നല്ല ഗൈഡ് എന്നു പറയുന്നത് നാം നമ്മുടെ കൂടെയുള്ള സഞ്ചാരികളെ നേർ വഴിക്ക് നയിക്കാനും അവരെ നന്മയിലേക്ക് നയിക്കുവാനുമാണ് തെറ്റായ വഴികൾ പറഞ്ഞ് അവരുടെ ദിശ തെറ്റിക്കാതെ ഒരു നല്ല രീതിയിൽ അവർക്ക് വേണ്ട സഹായം എത്തിക്കുകയും അവരുടെ ആവശ്യഘട്ടങ്ങളിൽ അവരോടൊപ്പം കൂടെ നിൽക്കുകയും ചെയ്യുന്നതാണ് ഒരു നല്ല ഗൈഡിൻ്റെ ഗുണങ്ങൾ നമ്മുടെ കൂടെയുള്ള സഞ്ചാരികളുടെ ഇഷ്ടം അനുസരിക്കുകയും അവർ പറയുന്നത് കേൾക്കുകയും നമ്മൾ പറയുന്നത് അവർ കേൾക്കുകയും ചെയ്യണം അല്ലാതെ ഗൈഡിൻ്റെ ഇഷ്ടാനുസരണം മാത്രം നടന്നാൽ അവിടെ ഒരു നല്ല ഗൈഡ് ആവുകയല്ല പകരം കൂടെയുള്ള സഞ്ചാരികളെ അറിയുന്നതിനും അവരുടെ മനസ്സ് മനസ്സിലാക്കുവാനും അവർക്കാവശ്യം വരുമ്പോൾ അവരെ മുമ്പിലേക്ക് നയിക്കാനും എല്ലാവരേയും പോലെ തന്നെ അവർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒരു നല്ല ഗൈഡിന് സാധിക്കുകയുള്ളൂ നല്ല വഴിക്ക് നടത്തുകയാണെങ്കിൽ മാത്രമേ അവരുടെ സഞ്ചാരത്തിന് തന്നെ ഒരർത്ഥം ഉണ്ടാവുള്ളൂ ഓരോ സഞ്ചാരവും അത്രയും പ്രധാനപ്പെട്ടതാണ് ഓരോ സഞ്ചാരവും ഒരോ വഴിയും തെഴിവുമാണ് ഓരോ ഗൈഡുകൾക്കും അതൊരു പുതിയ പാഠമാണ് ഓരോ സഞ്ചാരികളെയും നാം കാണുംപോലെ ഓരോ ഗൈഡുകൾക്ക് അത് നന്നാവാൻ പറ്റുള്ളൂ നല്ലൊരു ഗൈഡിങ്ങിന് തന്നെ വേണം പല കഴിവുകൾ കോഡിനേഷൻ കഴിവ് വേണം സ്പീക്കിങ്ങ് കഴിവ് വേണം മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്ന കഴിവ് വേണം ഒരാളെ എങ്ങനെ മനസ്സിലാക്കാനുള്ള കഴിവ് വേണം അങ്ങനുള്ള പല പല കഴിവുകൾ കൊണ്ട് തന്നെയാണ് ഓരോ ഗൈഡും നന്നാവുന്നത്